ഡ്രോയിങ് ക്ലാസ് നടത്തിയിട്ടുണ്ട് അതിനകത്ത് കൊച്ചുകുട്ടികളാണ് ഡ്രോയിങ്ങിന് വന്നിരുന്നത് അവരുടെ ടാലെൻറ്റെന്ന് പറയുന്നത് നമ്മളിപ്പോള് ഒരു ടോപ്പിക്കിനെയൊക്കെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാല് ഞാന് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അതിനെ ബേസേയ്ത് ഒരൂ മദ്യപാനം അതുകൊണ്ടാണ് നം സമൂഹത്തിന് ഉണ്ടാകുന്ന ദൂഷ്യം എന്നുള്ളൊരു സബ്ജെക്ട് കൊടുത്തിട്ട് കുട്ടികൾ വരച്ച ഒരോ ഫോട്ടൊ ഷെയ്ഡ് ചെയ്ത് ഫോട്ടൊ കണ്ടുകഴിഞ്ഞാല് നമ്മളെ വളരെ അമ്പരിപ്പിക്കുന്ന നമ്മളുപോലും ചിന്തിക്കുന്ന രീതിയിലപ്പുറമാണ് അവരുടെ ഫോട്ടോയിലൂടെ ആ ഒരു വിപത്ത് സമൂഹത്തിൽ വരുത്തിവെക്കുന്ന വിപത്തിനെ കുറിച്ചവര് വരച്ചു കാണിച്ചത് വരച്ചുകാണിക്കുമ്പോള് കുറച്ചൂടെ എനിക്കുതോന്നുന്നു പറയുന്നതിനെക്കാളും കുറച്ചുംകൂടെ എളുപ്പമാണെന്നു തോന്നുന്നു മനസ്സിലാക്കാനായിട്ട് അവര് ഒരു വീട്ട് ഒരു കുടു വീട് വീട്ടിൽ അപ്പനമ്മ കുട്ടികള് പിന്നെ അപ്പൻ കുടിച്ചേച്ച് വരുന്ന സാഹ കുടിച്ചേച്ച് വരുന്നു വഴിയിൽ ചിലര് വഴിയിൽ വീണ് കിടക്കുന്നതായിട്ട് അല്ലെങ്കില് വീട്ടിൽ വന്ന് ബഹളം വെക്കുന്നതായിട്ട് അല്ലെങ്കില് അമ്മേ അടിക്കുന്നതായിട്ട് ഭക്ഷണ സാധനം വലിച്ചെറിയുന്നതായിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരൊ രീതിയിലുള്ള കാര്യങ്ങളിലവര് വരച്ച് കാണിക്കും നമുക്കാ വരക്കുന്നതിലൂടെത്തന്നെ കാണാം പെയിൻറ്റിങ് അതില് പെയിൻറ്റിയ്ത് കൊടുത്തിരിക്കുന്ന അനാസ്സ് സാഹചര്യത്തിനനുസരിച്ചുള്ള രീതിയില് തന്നെ അവര് പെയിൻറ്റ് ചെയ്യാനും കാണു കണ്ടുകഴിഞ്ഞ അതിമനോഹരമാണ് ഒത്തിരി പേരങ്ങനെ വര വരച്ച് പ്രസൻറ്റെയ്യാനുള്ള കഴിവുള്ള കുറേ കുട്ടികളെ എനിക്ക് അന്ന് കണ്ടെത്തുവാൻ സാധിച്ചു പിന്നെ ഈ വാക്കുകൾ കൊണ്ട് സംസാര സംസാരത്തിലൂടെ നമുക്കൊരു കാര്യം എക്സ്പ്രസ്സ് ചെയ്യുന്നതിനെക്കാളിലും എളുപ്പമാണ് വരച്ച് ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കുക ഏത് തരേത്തിലുള്ള ഏത് ഏത് ലെവെലിലുള്ള ആൾക്കാർക്കും ഈ ഡ്രോയിങ്ങിലൂടെ വരച്ച് വരയിലൂടെ നമ്മള്ക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് മനസിലാക്കാൻ സാധിക്കും മനസിലാക്കി കൊടുക്കാന് സാധിക്കുമെന്നും അതവരുടെ മനസിനകത്തെപ്പോഴും അത് നിലനിൽക്കുമെന്നും വക് വാ സംസാര ചെവിയിലൂടെ കേള്ക്കുന്നതിനെക്കാളിലും കൂടുതല് കണ്ണിലൂടെ കണ്ട് അവരുടെ മനസ്സിൽ പതിഞ്ഞത് കുറച്ചൂടെ നിലനിൽക്കുമെന്നുള്ളതാണ് എനിക്ക് മനസിലാക്കാന് സാധിച്ചത്